തലമുറകൾ തമ്മിൽ മത വിശ്വാസം പങ്കിടുന്നതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാന പങ്ക് അവരുടെ കുടുംബത്തിന് തന്നെയായിരിക്കും ഒരു കുട്ടി ജനിച്ച് വളർന്ന് വരുമ്പോള്ത്തന്നെ അവൻ്റച്ഛനും അമ്മയും അവനെ പല മതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പഠിപ്പിച്ചുതുടങ്ങും പിന്നെ അവര് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒരുമിച്ച് ആചാരങ്ങൾ ചെയ്തുതുടങ്ങും ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും എല്ലാം അവര് തന്നെ ഒരുമിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പോള് അത് വഴി അടുത്തൊരു തലമുറയിലേക്ക് ഈ വിശ്വാസങ്ങളെല്ലാം കൈമാറുകയാണ് ചെയ്യുന്നത് എല്ലാം മതത്തിൽ എടുത്താലും ഇത് കോമണാണ് പിന്നൊന്ന് വന്നിട്ട് ഇവരുടെ മതത്തെ പറ്റി ചെറുപ്പത്തത്തിൽത്തന്നെ പല മതക്കാരും പഠിപ്പിച്ചുതുടങ്ങാറുണ്ട് വീട്ടിന്നല്ലാണ്ട് ഇപ്പോള് ഒരു മുസ്ലിം എടുക്കുക മുസ്ളീംസിനെ എടുക്കുകയാണെങ്കിൽ അവര് ചെറുപ്പത്തിൽത്തന്നെ അവരുടെ കുട്ടികളെ പള്ളിയില് വിട്ട് പല കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട് അവരുടെ മത പുസ്തകം ഖുറാനേപ്പറ്റിയും അതല്ലാണ്ട് തന്നെ അതുകളുടെ അവരുടെ കഥകളെപ്പറ്റിയും എല്ലാന്തന്നെ അവരെ പഠിപ്പിക്കാറുണ്ട് പിന്നെ എനിക്ക് വേറൊരു രീതിയായി തോന്നിയത് ഒരു കമ്മ്യൂണിറ്റി വഴിയാണ് ക്രിസ്റ്റ്യൻസിനാണേലും എല്ലാ മതങ്ങൾക്കാണേലും ഒരു കമ്മ്യൂണിറ്റിയുണ്ടാവും ഇവരൊത്തുകൂടലും ആഘോഷങ്ങള് കോർഡിനേറ്റ് ചെയ്യലും എല്ലാം വഴി തന്നെ അടുത്തൊരു തലമുറയ്ക് എങ്ങനെയാണ് ഇതെല്ലാം കൈമാറുന്നതെന്ന് കാണിച്ച് കൊടുക്കുന്നതിലൊരു പ്രധാന പങ്ക് വരുത്തുന്നുണ്ട് പിന്നെ അവസാനമായിട്ടിപ്പോള് നമ്മളീ പാട്ട് വഴിയും സിനിമ വഴിയും പുസ്തകങ്ങള് വഴിയും എല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്വന്തം മതങ്ങളെ പറ്റിത്തന്നെ അപ്പോള് അതെല്ലാം ഈ കൊച്ചുകൾക്ക് അടുത്ത തലമുറകൾ വാഴിക്കുമ്പോഴും കാണുമ്പോഴും അവര് തന്നെ മനസ്സിലാക്കുന്നത് അവരുടെ മതത്തിനെ പറ്റിയുള്ള വിശ്വാസങ്ങളും എല്ലാം അവര് തന്നെ മനസ്സിലാക്കുന്നു അതേ പോലെ അവര് അവരുടെ അടുത്ത തലമുറയ്ക്കും ഈ സെയിം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുമ്പോള്ത്തന്നെ അവര്ക്ക് അടുത്ത തലമുറയില് കൈമാറുന്നത് പോലെയാണ് പിന്നെ ഈ അമ്പലങ്ങളും പള്ളിയും എല്ലാന്തന്നെ വളരെ മികച്ച രീതിയില് വിശ്വാസങ്ങൾ കൈമാറാൻ ഹെല്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോള് അവസാനമായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും ഇപ്പോൾ മത പ്രചാരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോള് എല്ലാവരും അവനവൻ്റെ വിശ്വാസം പുറത്ത് പറയുന്നത് പല രീതിയിലാണ് ചിലപ്പോള് പുസ്തകങ്ങള് വഴിയാകാം ടി വിയില് ന്യൂസ് വഴിയാവാം അങ്ങനെ പല രീതിയിലും എല്ലാവരുടെയും മത വിശ്വാസങ്ങൾ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട്